ജീവിതത്തില് കായിക വിനോദങ്ങളുടെ പ്രാധാന്യമെന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കായികവിനോദം കാരണം ഇങ്ങനെ എന്നും തിന്നും കുടിച്ചും മാത്രമിരുന്ന് കഴിഞ്ഞ ആൾക്ക് ആളുടെ ശരീരഭാരം കൂടുന്നതും അങ്ങനത്തെ കാര്യങ്ങളും വെക്കുന്നതല്ലാതെ ആളുടെ ജീവിതം നല്ല രീതിക്കൊരു ഹാപ്പി ലൈഫ് കൊണ്ടുപോകാനാൾക്കു സാധിക്കില്ല അതു വളരെ അതൊരു പ്രശ്നമാണ് കാരണം എന്താണെന്നുവച്ചിട്ടുണ്ടെങ്കില് ഈ പറഞ്ഞ പോലെ ആള് വീട്ടില്ത്തന്നെ അടച്ചു കുത്തിയിരിക്കുന്നതെല്ലാം ആളുടെ ശരീരത്തിനു ഭയങ്കര ദോഷമാണ് എന്തെങ്കിലും കായിക വിനോദത്തില് ഏർപ്പെടാതെ ഇരിക്കുന്നത് ഭയങ്കര ഒരു ബാഡായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അങ്ങനത്തെ സംവിധാനങ്ങൾ ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോള് ആളങ്ങനെയായിപ്പോകുന്നത് അതുകൊണ്ട് നമ്മുടെ എല്ലാവരും തന്നെ ഇങ്ങനത്തെ കായിക വിനോദങ്ങളില് ഏർപ്പെടണം എന്നാണെനിക്കു പറയാനുള്ളത് ഏർപ്പെടാതിരിക്കുകയാണെങ്കില് ഷുഗര് പ്രഷര് ഡയബറ്റീസ് അങ്ങനത്തെ അസുഖങ്ങളെല്ലാം വരിക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനുഷ്യനു സംഭവിക്കും അതുകൊണ്ടുതന്നെ എല്ലാവരും തന്നെ അങ്ങനത്തെ കാര്യങ്ങളില് ഏർപ്പെടാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കാന് എന്തൊക്കെയാണു ചെയ്യണ്ടതെന്നു പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോള് കേരളത്തിലെ അവസ്ഥ പറയാണെങ്കില് കേരളത്തിലെ ഉള്ള സ്റ്റേഡിയങ്ങളും കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ കുട്ടികൾക്കൊക്കെ വന്ന് എൻ്റർടെയ്ൻ ചെയ്യാൻ പാകത്തിന് ഉള്ള കാര്യങ്ങള് ഇപ്പോള് നിലവില് കുറച്ചു കൂടിക്കൂടി വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നുന്നാലും പല സ്ഥലങ്ങളിലും ഈ സ്റ്റേഡിയങ്ങളോ കാര്യങ്ങളെല്ലാം കുറവാണ് വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് വന്നൊന്ന് എന്റര്ടൈൻഡ് ആവാനായിട്ട് കേരളത്തിലെ ആളുകൾക്ക് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കില് അത് വളരെയേറെ വളരെയൊരു ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോള് അതിനു നമ്മുടെ ഗവൺമെൻ്റ് എങ്ങനെയെങ്കിലൊന്നു ശരിയാക്കി എടുക്കണം അത് മെയിനൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ എന്താണു പറയുക കേരളത്തിലെ കേരളത്തിലെ കേരളത്തിലെ ആളുകൾക്ക് അല്ലെങ്കില് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കെല്ലാം അതു ഭയങ്കര ഉപകാരപ്പെടും പിന്നെ നമ്മുടെ ഇന്ത്യയിലാകപ്പാടെ സ്പോർട്സിനു പ്രാധാന്യം നൽകുന്ന ഒരു സ്പോർട്സ് ഗെയിമെന്നു പറഞ്ഞുകഴിഞ്ഞാല് ക്രിക്കറ്റാണ് ബാക്കി എല്ലാത്തിനും വലിയ പ്രാധാന്യം നൽകുന്നതായിട്ട് എനിക്കു തോന്നിയിട്ടില്ല കാരണം ക്രിക്കറ്റിനു മാത്രം എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഇന്ത്യ ഒരുക്കുന്നുണ്ട് എന്നാല് ഈ ക്രിക്കറ്റിനു കൊടുക്കുന്ന അതേ സംവിധാനങ്ങൾ ഫുട്ബോളിനോ അല്ലെങ്കില് മറ്റ് ഗെയിംസിനോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗെയിംസിലും ഇന്ത്യയ്ക്കൊരു മെഡലുറപ്പായിട്ട് എനിക്കു തോന്നിയിട്ടുണ്ട് കാരണം അത്രയ്ക്കും നല്ല കഴിവുള്ള ആളുകള് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം തന്നെ ഉണ്ട് അപ്പോള് അവരെ അവരെ മുൻപന്തിയിലേക്കെത്തിക്കാൻ ഇന്ത്യാ ഗവൺമെൻ്റിനു സാധിക്കുന്നില്ലന്നുള്ളതൊരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടുതന്നെ കളിക്കുവാനുള്ള സൗകര്യങ്ങളും എല്ലാ സ്കൂളുകളിലും ഇപ്പോള് സർക്കാർ സ്കൂളുകളിലൊക്കെ തന്നെയാണെങ്കിലും പി റ്റി ടീച്ചർ എന്നുള്ളൊരു തസ്തിക മാത്രമേ ഉള്ളൂ അത് അതിനപ്പുറം ഒരു കോച്ച് ഫുട് ബോൾ കോച്ച് അല്ലെങ്കില് ക്രിക്കറ്റ് കോച്ച് അങ്ങനത്തൊരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കില് എല്ലാ വിദ്യാർത്ഥികൾക്കും അതു ഭയങ്കര ഉപകാരപ്പെടും ഇനി ഇനിയുള്ള തലമുറയിലെ വിദ്യാർത്ഥികൾക്കാണേലും അതു ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അതുകൊണ്ട് അതെല്ലാം വളരെ നല്ലൊരു കാര്യമായിരിക്കും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ പറയാൻ ഇതൊക്കെയാണ് അല്ലാതെ പ്രത്യേകിച്ചങ്ങനെ ഒന്നുമില്ല എല്ലാം ആളുകളിലേക്കും കായിക വിനോദങ്ങൾ എത്തിച്ചേരണമെന്നാണു പറയാനുള്ളത്